കൂടുതലായിട്ടും ആളുകൾക്കിടയില് രോഗങ്ങൾ ഇണ്ടാകുന്നത് മഴക്കാലത്തും ശൈത്യകാലത്തുമാണ് അതിൽ തന്നെ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് പനി ജലദോഷം മറ്റ് രോഗങ്ങളാണ് ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് രോഗ രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങിയാൽ തന്നെ അടുത്തുള്ള ആശുപത്രികളിൽ സമീപിക്കുകയും യഥാ ക്രമം മരുന്നുകൾ കഴിക്കുകയും ചെയ്യുക അതോടൊപ്പം ചിട്ടയായ ഭക്ഷണ ക്രമവും വ്യായാമം ഒക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ അത്തരം രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും